ഇന്ത്യയില് കായികവിനോദങ്ങള് മെയിനായിട്ട് വരുന്നത് ക്രിക്കറ്റ് തന്നെയാണ് അപ്പോൾ ക്രിക്കറ്റിനെക്കുറിച്ച് പറയാൻ കുറേ അധികം കളിക്കാരും ഇപ്പോൾ വളരെ അധികം സപ്പോർട്ട് ഇന്ത്യൻ ദേശീയ അല്ലെങ്കിൽ ആൾക്കാർ അധികം സപ്പോർട്ട് ചെയ്യുന്നത് ക്രിക്കറ്റിനെത്തന്നെയാണ് അത് ഇപ്പോ ൾ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ്ങ് ആയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും അതുപോലെ രണ്ട് ക്രിക്കറ്റ് ടീമിന് നല്ല രീതിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് കുറേ അധികം കളിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്രമുഖരായിട്ട് കളിക്കാരെ നോക്കുകയാണെന്ന് പറയുമ്പോൾ സച്ചിനുണ്ട് ഗവാസ്ക്കറുണ്ട് പിന്നെ കോഹ്ലി രോഹിത് ശർമ്മ മിതാലി രാജ് പിന്നെ അങ്ങനെ കുറേ അധികം കളിക്കാര് ബൗളേഴ്സ് നോക്കുകയാണെന്ന് പറയുമ്പോൾ ഭുമ്രയുണ്ട് ഇർഫാൻ പത്താൻ ഉണ്ട് യൂസഫ് പത്താൻ ഉണ്ട് പിന്നെ സഹീർ ഖാൻ ശ്രീശാന്ത് അങ്ങനെ കുറേ അധികം ഇപ്പോൾ മലയാളികൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇച്ചിരി പഴയ കളിക്കാരൻ ശ്രീശാന്ത് ഒരു പഴയ കളിക്കാരനാണ് പിന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ വേറെ മലയാളി എന്ന് പറയാൻ ആയിട്ടുള്ളത് സഞ്ജു ഉണ്ട് തിരുവനന്തപുരത്തെ സഞ്ജു സാംസൺ ഉണ്ട് അങ്ങനെ ഒട്ടനവധി നല്ല താരങ്ങള് നമ്മുടെ ഇന്ത്യയിൽ കളിക്കുന്നുണ്ട് പിന്നെ വേറേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കായിക വിനോദം എന്ന് പറയുന്നത് ഫുട്ബോളാണ് ഫുട്ബോള് അത്യാവശ്യം എല്ലാവരും കളിച്ച് വരുന്ന അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ഇന്ത്യയിലും നല്ല പ്രചാരത്തിൽ ഉള്ള കളി തന്നെയാണ് അതിന് കുട്ടികൾക്ക് കുറേ സമയം പെട്ടന്ന് കളിക്കാൻ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കളിയാണ് ഫുട്ബോള് അതിൽ നമുക്ക് കായിക താരങ്ങളെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ സുനിൽ ഛേത്രി ഉണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ പുതിയ കളിക്കാർ കെ പി രാഹുല് പിന്നെ അതുപോലെ എന്താ പറയുക ഒരു കുറേ കളിക്കാര് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നുണ്ട് സഞ്ജേഷ് ഉണ്ട് അങ്ങനെ കുറേ അധികം ആൾക്കാര് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിക്കുന്നവരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്